ഇവിടെ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ആഘോഷിക്കുന്ന പ്രധാന സാംസ്കാരിക ഉത്സവങ്ങൾ ഏതൊക്കയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവങ്ങളെ വച്ച് നോക്കുമ്പോൾ ആണെങ്കിൾ ഏറ്റവും വലിയ ഉത്സവമാണ് വയനാട് ജില്ലയിലെ പിന്നെ വള്ളിയൂർക്കാവ് എന്നു പറഞ്ഞിട്ടുള്ള പിന്നെ മഹോത്സവമാണ് അവിടെയെന്നു വച്ചിട്ടുണ്ടെങ്കിൾ പതിനാല് ദിവസമാണ് അതായത് മാർച്ച് പതിനാലു തൊട്ട് പതിനാല് പിന്നെ പതിനാല് ദിവസത്തേയ്ക്ക് അതായത് മലയാള മാസം മീനം ഒന്നിനു തുടങ്ങുന്നത് ഉത്സവമാണ് പതിനാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടങ്കിൾ അതായത് താലപ്പൊലി വരവ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അതൊക്കെ അടിപൊളിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ വള്ളിയൂർക്കാവാണ് പിന്നെ എന്ത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ദീപാവലി ഹോളി മകര സംക്രാന്തി അങ്ങനത്തെയൊക്കെയുണ്ട് പിന്നെ ദീപാവലി എന്നു വച്ചിട്ടുണ്ടങ്കിൽ നമ്മളിങ്ങനെ കുറേ ദീപങ്ങളൊക്കെ തെളിയിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും അതു നല്ല അടിപൊളി പരിപാടിയാണ് പിന്നെ പിന്നെ നമ്മൾ ഈദുൽ ഫിത്തർ പിന്നെ അതായത് ബർത്ത്ഡേയ്ക്കുള്ള ഓരോ സമ്മാനങ്ങൾ കൈമാറൽ പിന്നെ ക്രിസ്തുമസ്സിനാണ് ക്രിസ്തുമസ്സിന് നമ്മൾ സമ്മാനങ്ങൾ കൈമാറും പിന്നെ കേക്ക് മുറിക്കും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ക്രിസ്തുമസ്സിന് ചെയ്യും അങ്ങനെ പല പല പരിപാടികളുണ്ട്